ആഹ് സ്കൂളിൻ്റെ ഒരു പാർട്ട് തന്നെയായിരുന്നു ലൈബറി കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും സമയം ചിലവഴിച്ചതും ലൈബറിയിലായിരുന്നു ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കുന്നത് മലയാള പുസ്തകങ്ങളാണ് മാധവിക്കുട്ടിയുടെ നീർമാതളം അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖി അതേ പോലെ ഒരു ഒരു കുടയും കുഞ്ഞിപെങ്ങളും എന്നു പറഞ്ഞൊരു ബുക്ക് വായിച്ചിരുന്നു അത് വളരെ ടച്ചിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു ഒരു ചേട്ടൻ്റെയും ഒരു അനിയത്തിയുടെയും കഥയാണ് അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നിലാണ് അപ്പോൾ ഒരു സ്കൂൾ തുറക്കുന്ന കാലത്ത് ആ കുഞ്ഞുപെങ്ങളൊരു കുട ആഗ്രഹിച്ചു പക്ഷേ അത് മേടിച്ചു കൊടുക്കാനായിട്ട് അ അവരുടെ പേരന്റ്സിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ ആ ഒരു കുട തന്നെയായിരുന്നു ആ ചേട്ടനും പെങ്ങളും ഷെയർ ചെയ്തോണ്ടിരുന്നത് അതൊരു ടച്ചിംഗ് സ്റ്റോറി ആയിരുന്നു സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികൾ അനുഭവിക്കുന്ന ചെറിയ വേദനകളും സങ്കടങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പുസ്തകമായിരുന്നു അത് അത് കുട്ടിക്കാലത്ത് വായിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടൊരു സ്റ്റോറിയാണ് ബാല്യകാലസഖി അതുപോലെ പാത്തുമ്മയുടെ ആട് അ കെ കേരളത്തിൻ്റെ മലബാർ ഏരിയയിലുള്ള ആളുകള്ടെ സം ലാംഗ്വേജും എല്ലാം നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ നിന്നും മനസിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചിരുന്നു